നിങ്ങളുടെ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ മൂന്ന് നാല് മതസ്ഥരുണ്ട് ഞങ്ങളെ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് പുലയന്മാരുണ്ട് പിന്നെ മുസ്ലിംസുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്നു പറയുമ്പോഴേക്കും ക്രിസ്ത്യൻസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഞങ്ങൾ കൂടുതലും എടത്വാ പള്ളി ഹരിത്തിങ്ങൾ പള്ളി പിന്നെ മലയാറ്റൂർ എന്നിവ തീർത്ഥാടനം കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് സന്ദർശിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അയമെസ് എന്നു പറയുന്ന ദേവാലയങ്ങൾ പോകുകയും അവിടെ ശാന്തി ഭവനിൽ പോയി ഞങ്ങൾ പിന്നെ അരു അനാഥരായിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മുസ്ലിംസിന് പൊന്നാനിയിലാണ് അവർ പോകാറുള്ളത് പൊന്നാനിയാണ് മുസ്ലിംസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായിട്ടും ഒക്കെ അവർ ഉപയോഗിക്കുന്നത് പോകാറും വരാറുള്ളത് ഹിന്ദുക്കൾ ശബരിമലയിലും എല്ലാ ഒക്കെ പോകാറുണ്ട് ശബരിമല അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ശബരിമലയിലതും അവർ പോകുന്നത് അങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതാണ് പിന്നെ പ്രത്യേകിച്ച് പ്രധാന ഞങ്ങളുടെ ചടങ്ങ് എന്നു പറയുമ്പോഴേക്കും എല്ലാ ദിവസവും ഞങ്ങൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്